ആ ഞങ്ങളുടെ പ്രദേശത്ത് കൂടുതലായിട്ടും കരകൗശല മേഖല നല്ല രീതിയിലുള്ള ഇത് പ്രാപിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറെ അധികം ആദിവാസി വിഭാഗപെട്ട വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് കൂടുതലായിട്ടും ഇങ്ങനത്തെ കരകൗശല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറിയാവുന്നതാണ് ഇപ്പം മൺ പാത്ര നിർമ്മാണം ഇപ്പോൾ കളിമൺ പ്രതിമകൾ അങ്ങനത്തെ പല രീതിയിലുള്ള പരിപാടികൾ ഇവർക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ കൊട്ട ഇപ്പം നമ്മൾ ഓട വെച്ചിട്ട് നമ്മൾ എന്താ പറയുക കൊട്ടയും കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നത് ഇവരാണ് കൂടുതലായിട്ടും അപ്പോൾ ഇവർക്ക് ഏകദേശം എ ടു ഇസെഡ് സാധനങ്ങൾ ഉണ്ടാക്കാനും അത് വിൽപ്പന നടത്താനും ഇവർക്ക് അറിയാവുന്നതാണ് നമ്മൾ കൂടുതലായിട്ടും ഇവരെ ഒക്കെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം ഉണ്ട് അതായത് നമ്മൾ ഇപ്പം ഇവർ കൂടുതലായിട്ടും ഇവരുടെ പൂർവികർ കണ്ടുപിടിച്ച് വരുന്ന അതായത് തൊഴിലും കാര്യങ്ങളൊക്കെ ഇവരുടെ പൂർവികർ കണ്ടുപിടിച്ച് വരുന്നതാണ് നമ്മൾ അവർ കൂടുതലായിട്ടും ചെയ്യുന്നത് അപ്പം ഇവർക്ക് അതായത് പൈതൃകം ആയിട്ട് കിട്ടിയ പല രീതിയിലുള്ള സംഭാവനകളാണ് ഇവരുടെ അടുത്ത് ഉള്ളത് ഇവർ അത് ഇപ്പോഴും പ്രയോഗിക്കുന്നുണ്ട് ചിലർ പ്രയോഗിക്കുന്നുണ്ട് ചിലർ പ്രയോഗിക്കുന്നില്ല നല്ല രീതിയിൽ ഉള്ള കാര്യങ്ങളും ചെ എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ട് ഇവർക്ക് പല രീതിയിൽ ഉള്ള ചിഹ്നങ്ങൾ കാര്യങ്ങൾ ഒക്കെ ഇവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറിയാൻ പറ്റും